നമ്മുടെ സമൂഹത്തിലെ സാംസ്കാരിക വസ്ത്രധാരണം എങ്ങനെയാണെന്നു വച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ അങ്ങനെയാണ് അല്ലാതെ കേരള സാരി ആയിരിക്കണം ഇല്ലെങ്കിൽ സാരി അണിയുന്ന ആൾക്കാരുടെ ഔദ്യോഗിക വസ്ത്രം അങ്ങനെയൊന്നുമില്ല നമ്മൾ നമ്മുടെ ഫാഷനബിളായിട്ടുള്ള എല്ലാ വസ്ത്രങ്ങളും ധരിക്കാറുണ്ട് പിന്നെ സമുദായങ്ങൾ ഒരിക്കലും വിവിധ സമുദായങ്ങളിലുള്ള ആൾക്കാർ ഇന്ന വസ്ത്രം ഇട്ടിരിക്കണം അങ്ങനത്തെ ഒരു നിയമമൊന്നും എവിടെയും എൻ്റെ അറിവിൽ ഇതുവരെ എനിക്കറിയില്ല അത് അങ്ങനെ ഒരു കാര്യങ്ങളൊ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഏറ്റവും നല്ലൊരു പ്ലസ് ആണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം നമ്മളെ ആഭരണങ്ങൾ ആയാലും എല്ലാം നമ്മൾ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ അനുസരിച്ച് മാത്രമാണ് ഇന്നുവരെ ധരിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് അടിപൊളിയാണ് ഇത് ഒരു സമുദായങ്ങൾ അങ്ങനെ ഒരു ഇന്ന വസ്ത്രം ധരിക്കണമെന്ന് ഓരോ സമുദായത്തിലും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതൊക്കെ നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ്മെന്റിൻ്റെ ആവശ്യമാണല്ലൊ പിന്നെ പേഴ്സണൽ താല്പര്യങ്ങളാണ് ഓരോ ആൾക്കാരുടെയും വസ്ത്രധാരണം എന്നു പറയുന്നത്